ഹലോ ഹലോ ഹലോ ഇത് നമ്മുടെ സ്റ്റേജ് ഇതൊക്കെ ഫ്ലവറൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സ്ഥലമല്ലേ ആ നമ്മള് കല്യാണമുണ്ടായിരുന്നു കല്യാണത്തിന് എന്താണ് സ്റ്റേജില് വെയ്ക്കാനായിരുന്നു ഒരു നല്ല കൂടിയതും വേണ്ട നല്ല കുറഞ്ഞതും വേണ്ട ഒരു ആ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കല്യാണം ആ ആ അത് ആതേത് കാര്യം

പിന്നെ എന്താണ് ഫുഡും കാര്യങ്ങളും അതൊക്കെ നിങ്ങള് ചെയ്തുതരുമോ കാറ്ററിങ്ങൊക്കെ ആ ആ പിന്നെ എന്താണ് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കല്യാണം ആ ലൊക്കേഷന് നമ്മള് ഇട്ടുതരാം

പിന്നെ എത്ര റേറ്റൊക്കെ എങ്ങനെയാണ് വരിക ആ ഒക്കെ നിങ്ങള് തന്നെ ഒക്കെ ചെയ്തുതരണം പത്തിനുള്ളിലോ ഫുഡും കാര്യങ്ങളുമൊക്കെ

വെഡ്ഡിംഗ് കാഡ് ആ വെഡിംഗ് കാർഡ് ഇല്ലെങ്കില് ഞങ്ങള് ചെയ്തുകൊള്ളാം നിങ്ങള് ഫുഡും കാര്യങ്ങളും പിന്നെ സ്റ്റേജ് ഡെക്കറേഷനും ചെയ്തുതന്നാല് മതി

ഓക്കെ ഒരു പത്ത് അഞ്ഞൂറ് ആളുകളുടെ പരിപാടിക്ക് എത്ര വേണ്ടിവരും

ആ ആയിക്കോട്ടെ ഓക്കെ എന്നാല് ഓക്കെ ആ ആ ഓക്കെ താങ്ക് യൂ